അതായത് നിങ്ങൾ നിങ്ങളുടെയൊരു സുഹൃത്തിനു വേണ്ടിയിട്ട് ഓൺലൈനിലൊരു ഒരു ഗിഫ്റ്റ് വാങ്ങി പക്ഷേ അത് ഇതുവരെ ഡിസ്പാച്ച് അപ്പോൾ നിങ്ങൾ ഭയങ്കര ടെൻഷനിലായിരിക്കുമെന്നറിയാം അപ്പോൾ നിങ്ങളെന്തു ചെയ്യണമെന്നു വെച്ചാൽ നിങ്ങളാദ്യം നിങ്ങളുടെ ഫോണിൽ ഏതു ആപ്പിൽ നിന്നാണോ അത് ഓഡർ ചെയ്തത് അവിടെ പോയിട്ട് ഓഡേഴ്സ് എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് ആ ഓഡർ ആദ്യം കൺഫേം ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക ആ ഓഡർ കറക്ടായിട്ട് കൺഫേംഡായിട്ടുണ്ടോ നിങ്ങളുടെ ഓഡർ പ്ലേസ്ഡായോ നിങ്ങൾക്ക് നിങ്ങൾ കൊടുത്ത ഫോൺ നമ്പറിൽ ഓഡർ പ്ലേസ്ഡായി എന്ന മെസ്സേജ് വന്നോ എന്നുള്ള കാര്യം ആദ്യം നോക്കണം അതു കഴിഞ്ഞിട്ട് താഴെ ട്രാക്ക് യുവർ ഓഡർ എന്നുപറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാകും എല്ലാ ആപ്പിലുമുണ്ടാകും അപ്പോൾ ട്രാക്ക് യുവർ ഓഡർ എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് ആ ഓഡർ പ്രോപ്പറായിട്ട് പാക്ക് ചെയ്തിട്ടിട്ടുണ്ടോ എന്നാണത് പാക്ക് ചെയ്തത് ഷിപ്പ് ചെയ്തിട്ടുണ്ടോ അതെന്നാണ് ആ ഷിപ്മെൻ്റ് ചെയ്തേക്കുന്നത് അഥവാ എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങളുടെ ഓഡർ ക്യാൻസലായി പോയിട്ടുണ്ടോ ക്യാൻസലേഷൻ ഓട്ടോമാറ്റിക്കലി ആയോ അല്ലെങ്കിൽ നിങ്ങളറിയാതയോ എന്തെങ്കിലും അബദ്ധവശാലോ ഓഡർ ക്യാൻസലായി പോയിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി ചിലപ്പോൾ നിങ്ങൾ ഓഡർ ചെയ്ത സമയത്ത് അത് ഔട്ട് ഓഫ് സ്റ്റോക്കായി പോയി അങ്ങനെയാണെങ്കിൽ അതു നോക്കുക ആ വക കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽസ് അറിയാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ താഴെ അതായത് ആ ആപ്പിൽ ഏറ്റവും താഴെ കൊസ്റ്റിൻസ് ഒരു കസ്റ്റമറിന് കൊസ്റ്റിൻ ചോദിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ടാകും അവിടെപ്പോയി നിങ്ങൾ കൊസ്റ്റിൻസ് ചോദിക്കാം വേണമെന്നുണ്ടെങ്കിൽ അത് ഡിസ്പാച്ച് ആ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾക്കത് ഷിപ്മെൻ്റ് ചെയ്ത് കിട്ടണം എന്നാണല്ലോ അപ് ആ ഷിപ്മെൻ്റ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ട്രാക്ക് ചെയ്യാം ഇൻകേസ് നിങ്ങൾക്കത് കിട്ടിയില്ല നിങ്ങൾക്കിനിയാ സാധനം ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കു തന്നെ അത് ക്യാൻസൽ ചെയ്യാൻ പറ്റും ആ അങ്ങനെ ക്യാൻസൽ ചെയ്താൽ നിങ്ങൾക്കത് റീഫണ്ട് കിട്ടുമോ ആ നിങ്ങൾ വാങ്ങിച്ച ആ സാധനം നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം കൂടി ആദ്യമേ നോക്കണം ചില സാധനങ്ങളവർ ഷിപ്മെൻ്റ് അല്ലെങ്കിൽ ഡിസ്പാച്ച് ചെയ്തുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം പിന്നെ അവർ ഇതൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴെ എപ്പോഴും ആ ആപ്പിൽ നമ്മൾ ഒരു ട്രാക്കിങ്ങിൻ്റെ ഏറ്റവും താഴെ ഒരു ടോൾ ഫ്രീ നമ്പറും ഉണ്ടാകും ആ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം അന്വേഷിക്കാം അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും